അത്തരത്തിൽ ഉറക്കെ ചിരിപ്പിച്ച ഒരു പുസ്തകം വായിച്ചതായിട്ട് ഓർക്കുന്നില്ല പ്രധാനമായിട്ടും ഗൗരവ പരമായിട്ടുള്ള വായനയാണ് നടത്താറുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പുസ്തകങ്ങളിൽ നോവലുകളാണ് വായിക്കാറുള്ളത് അത്തരത്തിലുള്ള പുസ്തകങ്ങളിൽ ഇങ്ങനെ പൊട്ടിച്ചിരിപ്പിക്കാനുള്ള സംഭവങ്ങൾ എഴുത്തുകൾ ഉണ്ടായതായിട്ട് ഓർമ്മയിൽ വരുന്നില്ല പിന്നെ പൊതുവെ അത്തരത്തിലുള്ള പൊട്ടിച്ചിരികൾ സാധരണ സാധാരണ കാണുന്ന ചിരിക്കാനിടയാകുന്ന സന്ദർഭങ്ങൾ ഒരു നെഗറ്റീവിറ്റി ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് ചിരി ഉണ്ടാക്കുന്ന തരത്തിലുള്ള കോമഡികളാണ് സാധാരണ കാണാറ് അത്തരത്തില്ളള ഇത് കാണുമ്പോൾ ചിരി ചിരിക്കാൻ തോന്നാത്ത ചിരി വരാത്ത ഒരാളായത് കൊണ്ടും വായിക്കുന്ന പുസ്തകങ്ങളുടെ പ്രത്യേകത കൊണ്ടോ അറിയില്ല അത്തരത്തിലുള്ളൊരു വായന അങ്ങനെ പൊട്ടിച്ചിരിച്ചതായിട്ട് അങ്ങനെ അധികം ചിരിപ്പിച്ചതായിട്ട് ഓർക്കുന്നില്ല വായന തുടങ്ങിയ ആദ്യകാലങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പുസ്തകങ്ങള് വായിച്ചിരുന്നൂ എന്നെനിക്ക് തോന്നുന്നു ബഷീറിൻറ്റെ ഒക്കെ പുസ്തകങ്ങള് വായിക്കുന്ന സമയത്ത് പക്ഷെ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഉള്ള പുസ്തകങ്ങൾ ഓർമ്മയിൽ വരുന്നില്ല